ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നേരിട്ടു കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ് യുവാക്കൾ നമ്മുടെ യുവജനങ്ങൾ കൂടുതലും മൈഗ്രേറ്റ് ചെയ്തു പുറത്തേക്ക് പോവുന്നത് വേറെ രാജ്യങ്ങളിലേക്ക് അവർ പോവുകയാണ് അപ്പം ഇവിടെ അപ്പോൾ നമ്മൾ ഒരു അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ഇവിടുത്തെ ജീവിത രീതി ഒന്നാമത്തെ കാര്യം ആർക്കും വലിയ താല്പര്യമില്ല എല്ലാവർക്കും വ്യത്യസ്ഥമായൊരു ജീവിത ശൈലി തേടി പോവുകയാണ് യുവാക്കൾ പിന്നെ എന്ന് പറയുന്നത് ഇവർ ഇവിടെ പഠിക്കുന്ന ജോലി പഠിക്കുന്ന പഠനത്തിന് അനുസരിച്ചുള്ള ജോലിക്ക് ജോലിക്ക് അവർക്ക് കിട്ടുന്നില്ല പിന്നെ ജോലി കിട്ടിയാൽ തന്നെ വേണ്ട രീതിയിലുള്ള സാലറി അവർക്ക് കിട്ടുന്നില്ല പെയ്മെൻ്റ് കിട്ടുന്നില്ല അവരുടെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടു പോവാനോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാലറി പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം പിന്നെ വേറെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം ഒരു സോഷ്യൽ വർക്ക് എക്സാമ്പിൾ സോഷ്യൽ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിനു വേണ്ട ഒരു ക്രെഡിബിലിറ്റി എല്ലാ ജോലിക്കും എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു ക്രെഡിബിലിറ്റിയും ഒരു വാല്യുവും ഇവിടെ ചെയ്യുന്ന ഒരു ജോലിക്കും കിട്ട്ന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ പുറത്തേക്ക് ഒക്കെ പോകുമ്പോൾ ഓരോ ജോലിയ്ക്കും അവർ കൊടുക്കുന്ന വാല്യുവും അവർ അത് ചെയ്യുന്ന പെയ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ഡീസൻ്റ് ആണ് അതുകൊണ്ട് ഇപ്പോഴത്തെ യുവാക്കൾ കൂടുതലും പുറത്തേക്ക് പോകുന്നത്